ഞാൻ കുറേയേറെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ അധികം കംഫോട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജീൻസ് ആണ് കാരണം അത് ഭയങ്കര കംഫോട്ടബിൾ ആണ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനാണെങ്കിലും ഓടാനാണെങ്കിലും ചാടാനാണെങ്കിലും ഭയങ്കര കംഫോട്ടബിൾ ആയിട്ടുള്ള ഒരൂ വസ്ത്രമാണ് ജീൻസ് പിന്നെ അതിൻ്റെ മെയിൻ അഡ്വാൻറേജ് എന്ന് പറയുന്നത് കുറേ നാളുകൾ യൂസ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്താൽ മതി അത് ഭയങ്കര ഒരു അഡ്വാൻറേജ് ആണ് എപ്പോഴും എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട പിന്നെ കുറേ പല തരത്തിലുള്ള ജീൻസുകൾ ഉണ്ട് അതിൽ ഏറ്റവും എനിക്ക് കംഫോട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ജീൻസ് മോം ഫിറ്റ് ജീൻസ് ആണ് പിന്നെ കൂടുതൽ ആൾക്കാർക്കും ഇറുകിപ്പിടിച്ച് കിടക്കുന്നതും അല്ലെങ്കിൽ ചിലർക്ക് ലൂസ് ആയിട്ട് കിടക്കുന്നത് അങ്ങനെ ഉള്ളതാണ് കംഫോട്ടബിൾ ആയിട്ടുള്ളത് എനിക്ക് കംഫോട്ടബിൾ ആയിട്ടുള്ളത് കുറച്ച് ലൂസ് ആയിട്ടുള്ളതാണ് പിന്നെ അതിന് ലോ കുറേ തരത്തിൽ ഫാഷനബിൾ ആയിട്ട് അല്ലെങ്കിൾ കുറേ തരത്തിൽ നമക്ക് സ്റ്റൈൽ ചെയ്യാം ജീൻസും കൊണ്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്